ആ ആ

ആ വന്നിട്ടുണ്ട് ചേട്ടൻ വരൂ ചേട്ടൻ എങ്ങനത്തെയാണ് നോക്കുന്നത് ആ ഫ്രിഡ്ജോ ചേട്ടൻ എങ്ങനത്തെയാണ് നോക്കുന്നത് ഫ്രിഡ്ജാണോ അതോ ടിവി ആ ഫ്രിഡ്ജ് ഇപ്പോൾ റേറ്റ് ഇപ്പോൾ ആ എത്ര ചേട്ടൻ ഉദ്ദേശിക്കുന്നത് ആ ഇപ്പോൾ ഉള്ള ഇവിടെയുള്ള ഫ്രിഡ്ജ് എന്ന് പറയണത് ഇതിപ്പോൾ ഓരോ കമ്പനികളുടെ സാംസങ് എൽജി സോണി അങ്ങനെ കുറെ കമ്പനീസുണ്ട് ഇതിപ്പോൾ ഗ്യാരണ്ടി പറയണത് അഞ്ചുവർഷത്തിൻ്റെ ഉണ്ട് പത്ത് വർഷത്തിൻ്റെ ഉണ്ട് പിന്നെ ഓരോ മോഡൽസ് പറയുമ്പോൾ സിംഗിൾ ഡോർ വരുന്നുണ്ട് ഡബിൾ ഡോർ വരുന്നുണ്ട് അങ്ങനെയാണ് ചേട്ടൻ ഇപ്പോൾ എങ്ങനത്തെയാണ് നോക്കണത് ആ റേറ്റ് കൂടും പക്ഷേ ഗ്യാരണ്ടിയുണ്ട് ഇപ്പോൾ പിന്നെ ഓഫറും ഉണ്ട് ഇതിപ്പോൾ ഒരു ഡബിൾ ഡോർ എടുക്കുകയെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു അറുപതിനായിരം രൂപ വരും അപ്പോൾ ചേട്ടന് കുറച്ചതിൽ നിന്ന് തരുമ്പോൾ ഒരു അമ്പത്തഞ്ച് ഒക്കെ ആയിട്ട് തരും ഓഫർ സിംഗിൾ ഡോർ വരുമ്പോൾ ഒരു നാൽപ്പതിനായിരം തുടക്കം പിന്നെ അതിൽ തന്നെ കുറെ വെറൈറ്റി മോഡൽസ് വരുന്നുണ്ട് ചേട്ടന് താൽപര്യം പോലെ നോക്കിയിട്ട് സെലക്ട് ചെയ്യാം ചേട്ടാ എന്ത് പരിപാടിക്കാണ് ഇപ്പോൾ ആ ഇതിപ്പോൾ ആ അത് ഓരോ ഫ്രിഡ്ജിന് അനുസരിച്ചിരിക്കും ഇപ്പോൾ ഓരോ കമ്പനിക്ക് ഓരോ ഓഫറാണ് കൊടുക്കുന്നത് അവര് അപ്പോൾ അതിനനുസരിച്ച് ഇരിക്കും അതിൻറെ വാറണ്ടീസും പ്രൈസ് ഒക്കെ വരുന്നത് ഇപ്പോൾ ഏതാ ചേട്ടൻ നോക്കുന്നത് സാംസങ്ങ് വേൾപൂള് അങ്ങനെ കുറെ കമ്പനീസ് ഉണ്ട് ഏതാ നോക്കുന്നത് ചേട്ടൻ

ആ അത് കുഴപ്പമില്ല അതിപ്പോൾ അഞ്ചുവർഷം ഗ്യാരണ്ടി വരുന്നുണ്ട് ആ സർവീസും കുഴപ്പമില്ല നല്ല സർവീസ് ഒക്കെ ആണ് അപ്പോൾ ചേട്ടൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് പറഞ്ഞു തന്ന് വെച്ചാൽ ഇതിപ്പോൾ മോഡൽ ഉണ്ട് ഇതിപ്പോൾ ഏതാ ഇതിൽ സെലക്ട് ചെയ്യുന്നത് ഇപ്പോൾ കുറേ ഡിസ് ആ ആ അതുവരണത് ഇതാണ് ഇതിപ്പോൾ കാണണ ഇതാണ് ഇപ്പോൾ പവർ സേവിങ്ങ് മോഡ് ഉള്ളത്

ഇതിപ്പോൾ വരണത് ഒരു ആ നാൽപ്പത്തിരണ്ട് വരുന്നുണ്ട് നാൽപ്പത്തിരണ്ടായിരം രൂപ ഇതിന് വരുന്നുണ്ട് ഓഫർ ഒക്കെ ആയിട്ടിപ്പോൾ വരണത് ഒരു മുപ്പത്തിയെട്ട് അങ്ങനെ റേറ്റ് വരും പിന്നെ ക്യാഷ് ബാക്ക് ആയിട്ട് ആണ് ബാക്കിയുള്ള ഓഫർ ആയിട്ട് വരുന്നത് ചേട്ടൻ പർച്ചേസ് ചെയ്യാം എന്തെങ്കിലും ആ ഇ എം ഐ ഉണ്ട് ചേട്ടൻ ഇങ്ങനെ ഇപ്പോൾ കാർഡ് ഉണ്ടെന്നുവെച്ചാൽ കാർഡ് ആയിട്ട് ഇ എം ഐ കൊടുക്കുന്നുണ്ട് ചേട്ടൻറെ ഇതുപോലെ നോക്കാം നോക്കാമല്ലേ എന്നാൽ ആ അപ്പോൾ ചേട്ടൻ ഇരിക്ക് പറയാം ഇല്ല ഇല്ല ഗ്യാരണ്ടി ഒക്കെയുണ്ട് കുഴപ്പമൊന്നും വരില്ല ആ അപ്പോൾ ഓക്കേ എന്നാൽ ഞാനിത് നോക്കിയിട്ട് പറയാം ആ ഒരു ബില്ല് കൊടുക്കട്ടെ എന്നാൽ